വര മെച്ചപ്പെടുത്താൻ നമുക്ക് പലതരത്തിലുള്ള വിദ്യകൾ ഉപയോഗിക്കാവുന്നതാണ് അതിൽ ഒന്നെന്ന് പറയുന്നത് പേടിക്കാതെ മനസ്സിൽ എന്തുവരുന്നോ അത് വരയ്ക്കുക എന്നുള്ളതാണ് അത് ശരിയാവുമോ തെറ്റാവുമോ അതിനെപ്പറ്റി പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്താണ് നിങ്ങടെ മനസ്സിൽ വന്നത് എന്താണ് നിങ്ങൾക്ക് വരയ്ക്കാൻ തോന്നുന്നത് അത് ഒരു പ്രാവശ്യം വരച്ചു നോക്കുക എന്താണ് മനസ്സിൽ കിടക്കുന്നത് അത് പേപ്പറിലോട്ട് വരയ്ക്കുക എന്നുള്ളതാണ് അത് ശരിയാവുമോ തെറ്റാവുമോ അതിലൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല വരകൾ പല തവണ വരച്ച് വരച്ചാണ് നമ്മൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നത് പിന്നെ വരക്കുമ്പോൾ ഓരോ അക്ര്യതികൾ വരയ്ക്കുമ്പോൾ നിർത്താതെ ഒരു ലൈനായിട്ട് വരയ്ക്കാൻ ശ്രമിക്കാതെ മുറിഞ്ഞു പോവില്ല വരകൾ മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക നിർത്താതെ അറ്റം വരെ അത് വരയ്ക്കാൻ ശ്രദ്ധിക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് വരയ്ക്കാൻ ഒരു വരയ്ക്കാൻ വേണ്ടി മാത്രം ഒരു പുസ്തകം എന്നും മാറ്റി വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ആ പുസ്തകത്തിൽ എന്നും ഒരു പടമെങ്കിലും ഒരു ചിത്രമെങ്കിലും ഒരു ദിവസം വരയ്ക്കുന്നത് നല്ലതാണ് എന്നാൽ എല്ലാ ദിവസവും ഒരോരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് ചിത്രങ്ങൾ നമ്മൾ വരച്ചു കഴിയും അത് നല്ലതോ മോശമോ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ച് വരയ്ക്കാതിരിക്കാതെ എല്ലാ ദിവസവും ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നതാവട്ടെ നമ്മുടെ കൈയുടെ വഴക്കും നമ്മൾക്ക് നന്നാക്കാൻ സാധിക്കാവുന്ന അങ്ങനെ നമുക്ക് സ്മൂത്തായിട്ട് മുന്നേ വരയ്ക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഒരു ബുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം മാറ്റിവയ്ക്കുക എല്ലാ ദിവസവും ഓരോരോ ചിത്രങ്ങൾ വരയ്ക്കുക മനസ്സിൽ എന്താണോ വരുന്നത് അത് വരയ്ക്ക അത് ശെരിയാവുമോ തെറ്റാവുമോ ചിന്തിക്കാതെ അത് വരയ്ക്കുക അങ്ങനെ നാം പിന്നെ നമ്മൾ എവിടെ എങ്കിലും വരയ്ക്കുന്ന പടം ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒന്നാവാം എവിടെ എങ്കിലും കണ്ടു വന്നതാവാം അവ ഏതെങ്കിലും ചിത്രത്തിൽ നിന്നാവാം എന്തുമാവാം നമുക്ക് അത് വരയ്ക്കുക അങ്ങനെ വരച്ചു വരച്ചു നമ്മുടെ കൈയുടെ വഴക്ക് ഉണ്ടായിട്ട് നമ്മൾക്ക് നന്നായിട്ട് നമ്മുടെ വരയെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് പിന്നെയും

അവൾ എന്നെ ഒരു പുസ്തകത്തിൽ നന്നായി വരയ്ക്കാനും പേടിക്കാതെ വരയ്ക്കാനും മനസ്സിൽ എന്ത് തോന്നിയോ അത് പേടിക്കാതെ വരയ്ക്കാനുമുള്ള പഠിക്കുക എന്ന് പറഞ്ഞു മനസിലാക്കി തന്നു നമ്മൾക്ക് എന്താണോ വരയ്ക്കേണ്ടത് എന്തിനെയാണോ നമക്ക് പകർത്തേണ്ടത് ഒരു പേപ്പറിലോട്ട് നമ്മടെ മനസ്സിൽ എന്താണോ തോന്നിയത് അത് വരയ്ക്ക അത് എങ്ങനെയായാലും തെറ്റായാലും ശെരിയായാലും പേടിക്കാതെ വരയ്ക്ക പേടിയോടെ നമ്മുടെ കഴിവിനെ പിന്തള്ളി പൊറകോട്ട് മാറ്റിനിർത്താതെ നമുക്ക് വരയ്ക്കാൻ തോന്നുന്നത് വരയ്ക്കുക അതാണ് അങ്ങനെ നമ്മൾ വരയ്ക്കുന്നത് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെ വരയ്ക്കുന്നതിലുടെ നമ്മുടെ ആ കഴിവ് ഇവയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നതോടെ നമ്മൾക്ക് നമുക്ക് വരയ്ക്കാൻ ഉള്ള വരയോടുള്ള ഇഷ്ടം കൂടുന്നു അങ്ങനെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റുകയും ചെയ്യും പിന്നെ എന്നെ വരയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഓൺലൈനിനു പകരം മോബൈല് പിൻറെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് അതിൽ നമുക്ക് എന്താണോ വരേണ്ടത് മനസ്സിൽ എന്താണോ ഐഡിയ തോന്നുന്നത് ആ ഐഡിയയിൽ നമ്മൾക്ക് ടൈപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവിടെ പല തരത്തിലുള്ള രൂപങ്ങളും ഭാവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു അക്ഷരമാണ് ഒരു അക്ഷരത്തിൻ്റെ ത്രീഡി രൂപമാണ് വരയ്ക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെയൊക്കെ ത്രീഡി രൂപം ഇനി അക്ഷരത്തിൻ്റെ ത്രീഡി രൂപം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള പല ആകൃതിയിലുള്ള പല ഷേപ്പിലുള്ള പല കളർ നിറങ്ങൾ കൊടുത്തിട്ടുളള ആ ഒരു അക്ഷരം നമ്മൾക്ക് കാണാൻ സാധിക്കും അത് നമ്മൾക്ക് ഓരോരോ സ്റ്റെപ് ബൈ സ്റ്റേപ് ആണ് വേണ്ടതെങ്കിൽ അത് നമ്മൾക്ക് അങ്ങനേയും കിട്ടും അത് നമ്മൾക്ക് വര വരയ്ക്കാനുള്ള ഓരോരോ വിദ്യകൾ കാണിച്ചു തരും എങ്ങനെയാണ് ഒരു ഒരു വരയ്ക്ക് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എളുപ്പം വഴി എന്താണ് എന്നൊക്കെ ഏത് കളറ് കൊടുത്താൽ ഇതിൽ മെച്ചപ്പെടാം പല തരത്തിലുള്ള ഇങ്ങനെയുള്ള പലതര ഷെയ്ഡ് ചെയ്യാം എന്നൊക്കെ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഇത് ചെയ്യാം എങ്ങനെയൊക്കെ നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്ക നമ്മൾക്ക് കാണിച്ചു തരും അത് അങ്ങനെ എന്നെ ഏറ്റവും കുടുതലായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു ഓൺലൈൻ എന്നു പറയുന്നത് പിൻറെസ്റ്റ് എന്നുപറയുന്ന ആപ്പാണ് അത് ഒരു ഒരുപാട് ഒരുപാട് എൻ്റെ വരയെ വര എന്ന കഴിവിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് എന്നെ സഹായിച്ച ഒന്നാണ് അക്ഷരങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള ചിന്തകൾ നമുക്ക് ഇപ്പം പൂമ്പാറ്റയെ ആണ് വരയ്ക്കേണ്ടത് ഇങ്ങന ഇങ്ങനെ നമുക്ക് ഒന്നുകൂടി നന്നായി വരയ്ക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിൽ തോന്നുന്നുന്ന ചിന്തയെക്കാളും എങ്ങിനെ ഇത് നന്നാക്കാം അങ്ങനെയുള്ള പല വിദ്യകളിലും പൂമ്പാറ്റയിൽ ചെയ്യുമ്പോൾ ഏറ്റവും സിംപിളായിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ വരകൾ പല ചിത്രങ്ങളും അവ നമ്മൾക്ക് കാണിച്ചു തരും എങ്ങനെ വരയ്ക്കേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് ഏതെല്ലാം രീതിയിൽ നമ്മൾക്ക് മനോഹരമാക്കാമെന്നും അവ നമ്മൾക്ക് കാണിച്ചു തരാറുണ്ട്